ബാഗിലെന്തെങ്കിലും പൈസ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ

ഓ ഓ എവിടേയ്ക്ക് പോവുകയായിരുന്നു ആ ഏത് ഏത് ഇവിടെ നിന്നാണ് പോയത് ഏത് സ്റ്റേഷനിൽ നിന്നാണ് കാണാണ്ടായത്

ആ ട്രെയിനിൽ കയറി അപ്പോൾത്തന്നെ പോയോ

ബാഗിലെന്തെങ്കിലും ഫോണോ അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ ഓക്കെ ഓക്കെ എനി അതേപോലെ ബാഗ് കണ്ടാൽ അറിയില്ലേ

അപ്പോൾ ഒരു പരാതി എഴുതി തരിക തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ തന്നെയുണ്ട് പരാതി എഴുതുന്നത് നിങ്ങൾ ഇപ്പം തന്നെ പരാതി തന്നാൽ ഇപ്പം തന്നെ തുടങ്ങാം

ആ ആ ആ ഇപ്പം തന്നെ അന്വേഷിക്കാം ഈ ഉച്ചയ്ക്ക് ശേഷം അന്വേഷിക്കാം പരാതി എഴുതിയിട്ട് ഇവിടെ ഇപ്പോഴൊരു ഒരു പോലീസെ ഉള്ളൂ അപ്പോൾ അവിടെ മൂന്നാലഞ്ച് പേരുണ്ട് കോഴിക്കോട് അപ്പോൾ അവരോട് പറയാം ഒരു മൂന്നു ദിവസം പറയാം മൂന്നു ദിവസത്തേക്ക്

ഓ കിട്ടുമല്ലോ ഇന്ന് തിങ്കളാഴ്ച്ചയാണല്ലോ വ്യാഴായ്ച്ച ആവുമ്പോഴേക്കും കിട്ടുമല്ലോ